വെല്ല് വിളി സീകരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇത് വെല്ല് ഫ്രെണ്ട്സിനോട് വെല്ല് വിളിച്ചിട്ട് പിന്നിടുള്ള സമയത്ത് ഇറങ്ങിയാ ചെയ്ത സ കഥ ഉണ്ട് എങ്ങനാണ് വെച്ചാൽ ഇപ്പോൾ പുഴെൽ കുളിക്കണ സമയത്തായിരുന്നു പുഴേൽ കുളിച്ച് താഴത്തേക്ക് എല്ലാവരും എണീച്ച് നിക്കണം ഫ്രെണ്ട്സെല്ലാരും കൂടെ എണീറ്റ് ഞാനും ഉണ്ട് എണീച്ചിട്ട് ഫ്രെണ്ട്സ്സെല്ലാരും കൂടെ എണിച്ചിട്ട് ഡ്രെസ്സെല്ലാം ഉണക്കീട്ട് വിട്ടയിന് ശേഷം എല്ലാവരും ആ പാക്കാക്കടുത്തു നിന്നിട്ടുണ്ടാവും അവളേക്ക് എൻ്റെ ഒരു ഫ്രെണ്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു ടൈമില് ആ ഒര് മൂലക്കായിട്ട് കുറച്ച് കടല് പുഴൻ്റെ സെന്ററായിട്ട് ഒരു ബോട്ട് മറിഞ്ഞിട്ടുണ്ട് ആ ബോട്ട് മറിഞ്ഞിട്ട് ആ ബോട്ടിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ആ പുഴയിൽ കാണുള്ളുന്നുള്ളത് അപ്പം ഏറ്റം ടൈമാണ് അന്താ അവളേക്ക് ഇത് എന്നോടൊരു ഫ്രെണ്ട് പറഞ്ഞു നിനക്ക് ആ ഒരു ബോട്ടിലേക്ക് എത്താൻ കഴിയുവൊ എന്നോടെന്നല്ല അവിടുള്ള അവിടുണ്ടായ അവിടുണ്ടായ ആൾക്കൂട്ടത്തിനോട് പറഞ്ഞത് ആ ബോട്ടിലേക്ക് ഇത് പെട്ടെന്ന് പോയിട്ട് ബോട്ടിലെത്തീട്ട് റിട്ടെണ് പിന്നയും വരുന്ന വരുന്ന ആൾക്ക് ഞാൻ അഞ്ഞൂറ് രൂപ തരുമെന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ തരുംന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞവന് അഞ്ഞൂറ് രൂപ അല്ല ഇത് ചോദിക്കുന്ന പൈസ തരും എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ഫ്രെണ്ട്സ്സ് പറഞ്ഞത് ചോദിക്കുന്ന പൈസാ എന്ന് പറയുമ്പോളേക്ക് ഓനേണ്ടു ഓനെകൊണ്ട് പറ്റാത്ത പൈസ ചോദിച്ചാൽ അവന് തരാൻ പറ്റില്ല അപ്പം നീ ഒരു കാശ് പറാന്ന് പറഞ്ഞ് അപ്പോന് പറഞ്ഞ് ഒക്കെ ആയിരം രൂപ തരാം ആ ഒരു ആ അട്ത്തേക്ക് ആര് പോയിട്ട് നീന്തീട്ട് വരുന്നു ഓർക്ക് ഞാൻ പൈസ താരാന്ന് പറഞ്ഞ് അപ്പം ഇത് കേട്ടിട്ട് ആ ഒരു ചെറുപ്പ കാലത്ത് കുട്ടിക്കാലം ആയതു കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ അറിയാത്തതു കൊണ്ട് തന്നെ എല്ലാവരും പിന്നെയും ഡ്രെസ്സല്ല അഴിച്ചിട്ട് പിന്നെയും നീന്താൻ തുടങ്ങി നീന്താൻ തുടങ്ങിയലേൽ ഇത് പുഴേന്ന് ഇറങ്ങീട്ട് കുളിക്കാൻ തുടങ്ങി കുളിച്ചിട്ട് നി നീന്തീട്ട് അക്കരക്ക് പോകാൻ തുടങ്ങി പക്ഷേ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഏറ്റം ഉള്ള ടൈം ആയിരുന്നു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രെണ്ട് ഒണ്ട് ആ ഫ്രെണ്ടും കൂടീട്ട് ആ ബോട്ടിന്റട്ത്തേക്ക് നീന്തി നീന്തിട്ട് പോവാണ് അപ്പം ഏറ്റം ടൈം ആയതുകൊണ്ടും ഇത് അടിയൊഴുക്ക് ഉണ്ടായത് കൊണ്ടും ഞങ്ങൾക്ക് തന്നെ അടുത്തെക്കെത്താൻ കുറെ പണി ഉണ്ടായീന്ന് അങ്ങനെ പോയി പോയി പോയിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ബോട്ട്ൻ്റെ മേളിൽ കയറിയിട്ട് ഇരിക്കുന്നത് ആ ഇരുന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോളേക്ക് ഞങ്ങളെ വേറെ രണ്ട് ഫ്രെണ്ട്സ്സും കൂടി വരുന്നുണ്ട് അവരോട് ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടൊണ്ടായില്ല പക്ഷേ അവർ വന്നിട്ട് നേരെ ഞങ്ങടെ പ ഞങ്ങൾ ആ കരേടെ പകുതി ഉള്ള ഭാഗത്ത് എത്തീട്ടാകുമ്പോളേക്ക് അതീന്നൊരാൾക്ക് മസ്സിൽ പിടിച്ച് കാൽ കാൽ മസ്സിൽ പിടിച്ചിട്ട് ഇത് കാൽ അനക്കാൻ പറ്റാത്ത രീതി ആയി അത് ഫുള്ള് ബോഡി ഫുള്ളായിട്ട് മസ്സിൽ പിടിചിട്ട് അവർക്ക് അനങ്ങാൻ പറ്റാത്ത രീതി ആയിട്ട് മാറി അങ്ങനെ മാറീട്ട് അതിന്ന് ഒരാൾ മുങ്ങാൻ തുടങ്ങി ഇത് അപ്പോൾ ആ ഒരു ടൈമ് പോയതെന്ന് പറഞ്ഞാൽ ഇത് ഒരാ ഒരാള് ഒന്നര അടി ഉണ്ടാവും വെള്ളത്തിന് അത് ഒരാൾ മുങ്ങാൻ തുടങ്ങി ഞങ്ങൾ നോക്കുമ്പളേക്ക് ഒരാളെ കൈ മാത്രമേ ഉള്ളു അങ്ങനെ ഞങ്ങൾ നീന്തീട്ട് ബോട്ടിലേക്ക് കയറിയ സമയം മാത്രമേ ആയിട്ടുള്ളു ഞങ്ങൾ പിന്നേം അവിടുന്ന് ചാടണ്ട വന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടീട്ട് അപ്പം ഇയാളെ കണ്ടിട്ട് മറ്റേ ആളും പേടിച്ച് ആ ഓരോന്നിച്ചിട്ടുണ്ടായ മറ്റേ ആളും പേടിച്ചിട്ട് രണ്ട് പേരും മുങ്ങാൻ തുടങ്ങി അപ്പം ഞങ്ങൾ അവരെ പോയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണങ്കിലും ഓർടെടുത്ത് പോയിട്ട് ഓരെ ഇങ്ങനെല്ലാ പൊന്തിച്ചിട്ട് ഈ ബോട്ടിന്റട്ത്തേക്ക് കൊണ്ടുവന്ന് ആ ബോട്ടിൽ കിടത്തി അന്നിട്ടും ആ ഒരാളെ മസ്സിൽ പിടിക്കുന്നുണ്ടായ ഒരാളെ കാൽ മസ്സിൽ പിടിക്കുന്നത് പോയിട്ടില്ല ബോട്ടിൽ കയറ്റിട്ട് നമ്മൾ ബോട്ടിന്ന് പിന്നയും താഴെ വീഴുന്നുണ്ട് ആ ഒരു ഇതിലായിട്ടാണ് ആള് ആളെ ബോഡി സ്ട്രച്ചറുണ്ടായിരുന്നത് അങ്ങനെ കുറെ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെയും ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പളേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഏറ്റം എന്ന് പറയുന്നത് ഒരാളല്ല ഒരാളെ മൂന്നടി വെള്ളത്ത് ഉയർച്ചേലാണ് വെള്ളം ഉണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞാലിപ്പം ഏകദേശം ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്ത് ഈ ഒരു ബോട്ടിൻ്റെ മോളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നല്ല വെള്ളം ഉണ്ടായെന്ന് ഏ ഇപ്പോൾ നമ്മൾ ഇത്ര റിസ്ക്കിലാണ് നമ്മ വന്നത് ഈ വെല്ല് വിളി സീകരിക്ക്ണ്ടായ്ന്നില്ല അപ്പം തോന്നി കാരണം ഞങ്ങൾ എറങ്ങുമ്പളേക്ക് കാൽ നിലത്ത് മുട്ടാത്ത രീതിയിലാണ് വെള്ളം ഉള്ളത് അത് മാത്രമല്ല അത്രയും കാറ്റും അടി ഒഴുക്കുള്ള സമയമാണ് ഇത് ഞങ്ങൾ ഇറങ്ങിയത് മണ്ടത്തരായെന്ന് അപ്പം തോന്നിയാലും പിന്നെ ഞങ്ങൾ കടൽക്കാ പുഴക്കാർക്ക് എത്താണ ഏതാണ്ട് നമുക്ക് വേറെന്ത് വഴി ഉണ്ടായിട്ട കാരണം അവിടുന്നൊരു ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉണ്ടാവും ഇത് അറുന്നൂറ് മീറ്ററിൻ്റട്ത്ത് എങ്ങാനും നീന്തീട്ട് വരണം പക്ഷേ അതീന്ന് രണ്ടാൾക്ക് ഏറ്റവും കൂടുതൽ കഴിയുന്നുവില്ല കാരണം ഒരാൾക്ക് മസ്സിൽ പിടിച്ചിട്ട് കഴിയുന്നുവില്ല മറ്റേ ആള് പേടിച്ചിട്ട് നീന്താനും പറ്റുന്നില്ല അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രണ്ടാളും ഞങ്ങൾ രണ്ടാളും കൂടീട്ടാണ് കൊണ്ട് വരണെങ്കിൽ അപ്പം ഈ ആൾക്കാരെ ഹെൽപ്പാക്കണോ വേണോ ഞങ്ങക്ക് ഇവിടുന്ന് കരക്ക് രക്ഷപെടണോ വേണൊ പക്ഷേ പുറത്തുള്ള ആൾക്ക് ഞങ്ങളെ രക്ഷപെടുത്താനും പറ്റില്ല അങ്ങനെ കുറെ നേര വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കീട്ട് ഏറ്റം കഴിഞ്ഞെന്ന് ഉറപ്പായ ശേഷമാണ് ഞങ്ങളാ ബോട്ടിന്ന് ഇറങ്ങുന്നത് അപ്പളേക്കും ഒരാള് ഇത് ഇത് അടീന്ന് പറന്നത് പോയാ പുഴടടീ ന്ന് പറഞ്ഞത് ഒരാൾടെ മൂന്ന് നാലെരട്ടി ഉണ്ടാവും അവിടുന്നു വെള്ളത്തിലിറങ്ങിയിട്ട് ഈ രണ്ട് പേരെ ഞങ്ങൾ രണ്ട് പേരെ പൊന്തിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കടൽ ഈ പുഴക്കരയിൽ ഇടുമ്പോഴേക്ക് ഏകദേശം ഒരര മണിക്കൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും അത് ഈ നമ്മൾ പറയുന്നത് പോലല്ല ഒരാളെ മുങ്ങുന്നടുത്തൂന്ന് പൊക്കീട്ടെടുക്കുന്നത് പോലെ അല്ല ഒരാളെ പൊന്തിച്ചിട്ട് കൊണ്ട് വന്നിട്ട് ആ ഒരാളെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും നമുക്ക് കുറച്ചൂടെ നോക്കാനുണ്ട് കാരണം ആ ഒരാൾ നമ്മളെ പേ ഇത് ചങ്ക് പിടിച്ചിട്ട് മുക്കും കാരണം അയാൾ ഒരു പേടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അയാൾക്ക് നീന്താൻ പറ്റാത്ത രീതി ആയിരിക്കും അപ്പം അയാള് ഇത് അയാളൊന്നും നിപ്പോണ്ടാവില്ല അത് എങ്ങനായാലും എന്ത് കിട്ടിയാലും അതോ പിട് ഒറക്കെ പിടിക്കും മുങ്ങുന്നയിന് വേണ്ടിട്ട് പക്ഷേ ആ മുങ്ങുന്നതിന് പകരമായിട്ട് പിടിച്ചിട്ടുള്ള ഞങ്ങളെ കൈയാൽ ഞങ്ങടെ ചങ്കാറ്റാണെങ്കിൽ ഞങ്ങളേയും കൊണ്ട് താഴോട്ടേക്ക് മുങ്ങും അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെയും പുഴയിൽ നിന്ന് പുറത്തേക്ക് വരണം വേണം അതല്ലാണ്ട് കൈ കരക്കെത്തണേ വേണം അപ്പം ആ ഒരിതിലാകുമ്പോൾ കുറച്ച് നല്ല ടാസ്ക്കാട്ടാ റിസ്ക്കാട്ടാരിക്കു ഉണ്ടാവാ അതുമാത്രമല്ല അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ട് ഒരര മണിക്കൂറ് കാ മണിക്കൂറ് കഴിഞ്ഞേ ശേഷമാണ് ഞങ്ങൾ കരക്കെത്തുന്നത് എന്നിട്ട് വിചാരിച്ചു ഇത് വെറുതെ എടുക്കണ്ടായിരുന്നു ഇങ്ങനത്തൊരു വാ മണ്ടത്തര തീരുമാനം എടുക്കണ്ടായിരുന്നു ഇത് എന്താന്ന് വെച്ചാൽ ഇത് വെറുതെ നല്ല റിസ്ക്കൊള്ളൊരു പണിയായിരുന്നു അങ്ങനൊക്കെ ആ ഒരു ടൈമി തോന്നി അതല്ലാണ്ട് വേറൊരു സ്ഥലത്ത് ഞങ്ങളോരു കണ്ണൂർ കോളേജിൽ ട്രിപ്പ് പോയ ടൈമ് ഇവ്ടുന്ന് ട്രിപ്പ് പോയതാണ് അപ്പം കണ്ണൂരൊരു കോളേജിൻ്റെ അടുത്തായിട്ട് ആനക്കുളം എന്ന് പറയുന്നൊരു കുളം ഉണ്ടായിരുന്നു അത് നല്ല ഏകദേശം നല്ല നീളവും വീതിയുള്ള കുളമായിരുന്നു അന്നെല്ലാവരും ഞങ്ങൾ ഫ്രെണ്ട്സ്സെല്ലാരും കുളിക്കാണ്ട് പോയത് ആ കുളത്തിലാണ് അപ്പം ആ കുളിയ്ക്കുന്ന ടൈമ് അവർ പറഞ്ഞ് അതെന്നാൽ അതുപോലെ തന്നെയാണ് ഒരാൾ പറഞ്ഞ് ഇത് നീ ഇയീന്റപ്പറം ഈ ഇക്കരേ നിന്ന് അക്കരേക്ക് നീന്തീട്ട് പോയാൽ നിനക്ക് അഞ്ഞൂറ് രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ഞാൻ പൈസ കിട്ടിയെങ്കിൽ ആയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അക്കരക്ക് നീന്താൻ തുടങ്ങി നീന്താൻ തുടങ്ങീട്ട് എത്ര ആയാലും പറ്റുവോന്ന് ഉറപ്പില്ല കാരണം എന്നാട്ടും എത്രയോ താഴ്ചേലാണ് വെള്ളമുള്ളത് എന്നിട്ട് പറ്റുവോന്ന് ഉറപ്പില്ല എന്നാലും ഞാൻ ആ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് റിസ്ക്കെട്ത്തിട്ട് അക്കരക്ക് നീന്തീട്ടെത്തി അക്കര നീന്തി എത്തീട്ട് നമ്മളെ കണ്ട ആ ഒരു ഇച്ച പറയുന്നു നിങ്ങൾ ഇങ്ങനെ റിസ്ക്കെട്ത്തിട്ട് അക്കരെ ഇക്കരെ പോണ്ട പോവണ്ട കാരണമെന്തെന്നാൽ ഇത് അക്കരെ ഇതേ കുളത്തിൽ കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട് മുങ്ങി മരിച്ചിട്ടുണ്ട് കുറെ കുട്ടികളായിട്ട് അതുകൊണ്ട് ത് നിങ്ങൾ അക്കക്ക് ഇക്കറ്റക്ക് പോകണ്ട നടന്നിട്ട് ചുറ്റിട്ടക്കെ വന്നാൽ മതീന്ന് പറഞ്ഞ് അയാൾ ആ ഒരു ഡയലോഗ് പറഞ്ഞത് മാത്രമേ ഉള്ളു പക്ഷേ അയാൾ നമ്മളെ മെന്റലി ഹെല്ത്തിനകത്തക്കെ ഡൌൺ ആക്കീട്ടേളക്കി കാരണമെന്ന് പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാന്ന് അങ്ങനെ ഞാൻ ചുറ്റീട്ട് ഏകദേശം ആ കുളം ഫുൾ ചുറ്റീട്ടാണ് ഈ ഫ്രെണ്ട്സ്സിന്റട്ത്തക്കെ നടന്നിട്ട് വരുന്നുള്ളത് അത്രയും റിസ്ക്കിലാണ് ആ ഞാൻ പറഞ്ഞ റിസ്ക്കെട്ത്തിട്ട് പോയത് ഒരഞ്ഞൂറ് രൂപക്ക് വേണ്ടി ഞാൻ റിസ്കെടുത്തേന്ന് എനിക്കപ്പം തോന്നി ഇതെല്ലാ ഒരു വെല്ല് വിളി ആയിട്ട് അങ്ങനെ സീകരിച്ചിട്ട് മണ്ടത്തരത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്